ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മലയാളം പോലും അവര്ക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ മലയാളം പഠിപ്പിക്കാമെന്നു വച്ചാൽ അവർ പഠിക്കുകയും ഇല്ല നമ്മൾ അവസാനം നമ്മളെ അവരുടെ ഭാഷ പഠിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഇതിലോട്ട് വരുന്നത് അങ്ങനെ ഇപ്പം മലയാള ഭാഷ ഇപ്പം എന്താ പറയുക എല്ലാ മേഖലയിലും മലയാളം എന്നത് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്